ഹലോ സ്പാഗോ റെസ്റ്റോറന്റ് അല്ലേ ഞാനവിടെ നിന്നൊരു ഫുഡ്ഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പേര് പാർവ്വണ സത്യൻ എന്റെ അഡ്രസ്സ് തളത്തിൽ ഹൗസ് സെറ്റപ്പാലം ടൗണിൽ തന്നെയാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ട് അഞ്ച് മിനുട്ട് ആയിട്ടുള്ളൂ എനിക്കിത് എത്ര സമയം കൊണ്ട് കിട്ടും എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഓക്കെ തേർട്ടി മിനുട്ട്സ് എടുക്കും അല്ലേ മാക്സിമം ഒന്നു സ്പീഡാക്കിത്തരാൻ പറ്റുമോ ഓക്കെ താങ്ക് യു